ടിവി പ്രോഗ്രാമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചർച്ചകളാണ് രാത്രി എട്ട് മണിക്ക് എല്ലാ ചാനലിലും ന്യൂസ് ചാനലിലും ഉണ്ടാകുന്ന ചർച്ചകൾ കാണാൻ എനിക്ക് വളരെ ഇഷ്ടമാണ് രാത്രിയാണ് അധികം ചർച്ചകൾ ഞാൻ കണ്ടിട്ട് ഉള്ളത് പകൽ ഉണ്ടോ എന്ന് അറിയാറില്ല ശ്രദ്ധിക്കാറില്ല അതാണ് സത്യം രാത്രിയിലെ ചർച്ചകൾ ആകുമ്പോൾ എല്ലാ സമകാലീന പ്രശ്നങ്ങൾ അയാളെ അന്ന് അതിൽ ചർച്ച ചെയ്യുന്നുണ്ടാവും ഓരോ രാഷ്ട്രീയ പാർട്ടികൾ ആയിരിക്കും എങ്കിലും അവരുടെതായ പല ഭാഗത്തു നിന്നുള്ള വ്യൂവ് നമുക്ക് ശ്രദ്ധിക്കാം കാണാനും സാധിക്കും അതായത് ഇപ്പം ഇന്ന് ഒരു പട്ടി കടിച്ചൊരു വിഷയമാണെങ്കിൽ ആ പട്ടി കടിച്ചതിന് ചിലപ്പോൾ പട്ടികളെ സംരക്ഷിക്കുന്നവർ ഉണ്ടായിരിക്കാം പട്ടികളെ വിമർശിക്കുന്നവർ ഉണ്ടായിരിക്കും അങ്ങനെ ഓരോ അവരുടേതായ ഭാഗങ്ങളിൽ നിന്നുള്ളത് കാണാം പിന്നെ അതുപോലെതന്നെ ഒരാളും മരിച്ചാൽ ആ മരിച്ചവരെ കുറിച്ചുള്ള അവരുടെ ഫീച്ചേഴ്സ് അങ്ങനെയൊക്കെ ചർച്ചകളിൽ നന്നായി വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ടായിരിക്കും അങ്ങനെ ഒരു ദിവസം നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തെ പാർട്ടിയിൽ അല്ലാതെ ചർച്ചകൾ പാർട്ടിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ആയിരിക്കും അല്ലെങ്കിൽ എന്തുമായിക്കോട്ടെ സമകാലിക പ്രശ്നങ്ങളോ എന്തുമായിക്കോട്ടെ അത് രാത്രിയിൽ നമ്മൾ ചർച്ചചെയ്യുമ്പോൾ നമുക്ക് പല സൈഡ് ഇന്ന് ഉള്ള വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഉള്ളിലേക്ക് എത്തുക അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ചർച്ചകള് കാണാൻ വളരേ ഇഷ്ടമാണ്